ഇപ്പോൾ ഞങ്ങള് താമസിക്കുന്ന വിനോദ സഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും അതായത് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കക്കയം ഡാമ്മ് അങ്ങനെ ഉള്ള വിനോദ സഞ്ചാരങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പം പർവ്വത മലനിരകള് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇടയില് ഉണ്ട് അപ്പം കക്കയം ഡാമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രസമാണ് ഇവരുടെ ഇതിൻറെ ഡാമ്മ് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ ഉള്ളത് തുഷാരഗിരി ആണ് തുഷാരഗിരി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കോഴിക്കോട് നിന്ന് വയനാട് പോകുന്ന റൂട്ടില് അവിടെ ആ ഒരു ഭാഗത്താണ് ഇപ്പം തുഷാര ഗിരി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ള ചാട്ടം കാര്യങ്ങള് ഒക്കെ നല്ല രീതിയിൽ കാണാം ആസ്വദിക്കാം അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒക്കെ വേണ്ടി പറ്റും ഇപ്പം നമ്മള് ഒരു മലേൻറ്റെ മുകളിലേക്ക് കയറി പോയിട്ടാണ് തുഷാരഗിരി ഡാമിലേക്ക് ഡാമല്ല വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം അവിടെ ഒക്കെ ആൾക്കാര് നല്ല രീതിയിലുള്ള പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പലതരം സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പം കോഴിക്കോട് തന്നെ മാനാഞ്ചിറ ഉണ്ട് മനാഞ്ചിറ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഒരു പാർക്ക് പോലെ ആണ് അതായത് ഒരു വലിയൊരു ഡാമ് ഡാമ് പോലെ ഒരു തടാകം അപ്പം അതിൻ്റെ ചുറ്റും നമുക്ക് വേണമെങ്കില് രാത്രി സമയങ്ങളിലൊക്കെ ഓരോരുത്തര് എന്താ പറയുക ഇപ്പം പോയി ഇരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നമ്മക്ക് ഇപ്പം വെറുതെ പോയി ഇരിക്കുമല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും